ഞങ്ങളുടെ പ്രദേശത്ത് മാത്രമായിട്ട് ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വള്ളിയൂർക്കാവെന്ന് പറഞ്ഞൊരു ഉത്സവമുണ്ട് അതാണ് ഞങ്ങൾക്കിവിടെ വയനാട്ടിൽ ഏറ്റവും വലിയ ഉത്സവമാണ് പതിനാല് ദിവസം അതായത് മാർച്ച് പതിനാല് തൊട്ട് മുപ്പത് മുപ്പത്തൊന്ന് വരെയുണ്ടാവും അതിപ്പോൾ മീനമാസം ഒന്ന് എപ്പോഴാണ് ഒന്ന് മീനമാസം ഒന്ന് തൊട്ട് പതിനാല് ദിവസമാണ് കണക്ക് ഞങ്ങളുടെ വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് പിന്നെ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താലപ്പൊലി ഉണ്ടാവും താലപ്പൊലി ഘോഷയാത്ര ഉണ്ടാവും പിന്നെ അതായത് കുറേ ചന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എക്സിബിഷൻ ഉണ്ടാവും പിന്നെ അമ്പലത്തിൽ ഓരോ പൂജയുണ്ടാവും ദിവസവും പൂജ ഉണ്ടാവും പിന്നെ രാത്രിയും ഉച്ചയ്ക്കും ഒക്കെ അന്നദാനം ഉണ്ടാവും അപ്പം ഞങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഉത്സവങ്ങളിലൊന്നാണ് വള്ളിയൂർക്കാവ് ഉത്സവം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബത്തേരി മാരിയമ്മൻ ഉത്സവം ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഉത്സവങ്ങളുമുണ്ട് അപ്പം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പിന്നെ മെയിൻ ഉത്സവമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളിയൂർക്കാവ് ഉത്സവം തന്നെയാണ്